മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സ് എന്ന് പറയുമ്പോൾ ആദ്യം എന്റെ മനസ്സിലോട്ട് വരുന്നത് ഫ്ലുട്ടാണ് ഞാന് ഒരുപക്ഷെ പാട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്നത് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സില് ഫ്ലുട്ടാണ് എനിക്ക് ഫ്ലുട്ട് പഠിക്കണമെന്ന് ഒരഗത ഒരഗാദമായ ഒരാഗ്രഹം ഉണ്ട് ഭാവിയില് പഠിച്ചാൽ കൊള്ളാമെന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ഒരു ഇന്സ്ട്രമെന്റ്റ്റാണ് എനിക്ക് ഇഷ്റ്റപെട്ട ലിസ്റ്റില് വരുന്നൊരു ഇന്സ്ട്രമെൻറ്റാണ് ഗിറ്റാറെന്നു പറയുന്നത് ഫ്ലുട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് ഇന്സ്ട്രമെന്റ്റ്റാണ് ഞാന് ഏറ്റവും കൂടുതല് ഇഷ്ടപ്പെടുന്ന ഇന്സ്ട്രമെന്റ് ഒരുപക്ഷെ പാട്ടു കഴിഞ്ഞാൽ എനിക്ക് ഫ്ലുട്ട് പഠിക്കണമെന്ന് വളരെ ആഗ്രഹം ചെറുപ്പം ചെറുപ്പം മുതൽ ഉള്ള ഒരാഗ്രഹമാണ് ഫ്ലുട്ട് പഠിക്കണമെന്ന് ഞാനങ്ങനെ ഫ്ലുട്ടൊക്കെ മേടിച്ച് യൂട്യൂബ് നോക്കി അത്യാവശ്യം അതില് സരിഗമപധനിസ അങ്ങനൊക്കെ വായിച്ച് പഠിച്ചിട്ടുണ്ട് ചെറുതായ രീതിയില് ചെറുതായ രീതിയില് പഠിച്ചിട്ടുണ്ട് ഇന്സ്ട്രമെന്റ് ഇന്സ്ട്രമെന്റ്റ്റിനോടെറ്റവും കൂടുതല് താല്പ്പര്യം ആന്നെനിക്ക് കാരണം നമ്മളെ നമുക്ക് ഇഷ്ടംപോലെ ഇന്സ്ട്രമെന്റ് ഉണ്ട് ഇന്ത്യന് കള്ച്ചറില് നോക്കിയാല് കര്ണാട്ടിക് ക്ലാസിക്കല് മ്യൂസിക്കില് നോക്കിയാല് നമ്മള് മൃദംഗം വയലിന് അതുപോലെ ഖഠം അതുപോലെ മോർശംഖ്

പലതരത്തില് ഇന്സ്ട്രമെന്റ്സ്സുണ്ട് ഇതൊക്കെയാണ് വായിക്കാറ് പൊതുവേ എനിക്ക് എല്ലാ ഇന്സ്ട്രമെന്റ്റ്റും ഇതിലിഷ്ടമാണ് അതെപോലെ നമ്മള് നോര്ത്തി ലൊക്കെ നോര്ത്തില് നോക്കിയാല് ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് നോക്കിയാല് നമ്മള് ഹിന്ദുസ്ഥാനി മ്യൂസിക്കില് നോക്കിക്കഴിഞ്ഞാല് തബല അതുപോലെ തന്നെ ഹാര്മോണിൃം എന്നിവയൊക്കെയാണ് ഇന്സ്ട്രമെന്റ്സ്സ് ഹിന്ദുസ്ഥാനിയായാലും കര്ണാട്ടിക്കായാലും അല്ലെങ്കില് വെസ്റ്റേണായാലും ഈസ്റ്റെണായാലും എല്ലാത്തിലും മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് വളരെ ഇമ്പോര്ട്ടന്റ്റ്റാണ് ഏതൊരു പാട്ടിനും ഏതൊരു സംഭവത്തിനും ഏതൊരു ഇമോഷനെ വരുത്താനും ഒക്കെ മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്റ്റും മ്യൂസിക്കും വളരെ വലിയ റോള് പ്ലേ ചെയ്യുന്നുണ്ട് അതുകൊണ്ടുതന്നെ മനുഷ്യര്ക്കായാലും മൃഗങ്ങള്ക്കായാലും ഈയൊരു മ്യൂസിക്ക് എന്ന് പറയുന്നത് ആ മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്റ്റുണ്ടാക്കുന്ന അതിന്റെ മധുരമായ സ്വരങ്ങളും ഇതൊക്കെ വളരെ ഏ ഏറെ ഇമ്പോര്ട്ടന്റ്സുള്ളോരു സംഭവമാണ് സയന്സ് വരെ പ്രൂവ് ചെയ്ത സംഭവമാണ് മ്യൂസിക് പ്ലേ മ്യൂസിക് വളരെ വലിയൊരു റോള് നമ്മുടെ മസ്തിഷ്കത്തില് അതായത് ബ്രെയിനില് പ്ലേ ചെയ്യുന്നുണ്ട് കാരണം പലതര രോഗങ്ങളും മ്യൂസിക് വഴി ക്യു ക്യുവറ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറെ പേര് കോമയിലായ സമയത്ത് മ്യൂസിക്ക് കേൾക്കാൻ വേണ്ടി ഇഷ്ടപ്പെടുന്ന കുറെ പേരുമുണ്ട് മ്യൂസിക് കാരണം ഹീല് ചെയ്ത കുറെ ആള്ക്കാരുണ്ട് കോമയിൽ നിന്ന് പുറത്ത് വന്നവരുണ്ട് അങ്ങനെ കുറെ പ്ലേ ചെയ്യുന്നൊരു സംഭവമാണ് ഫ്ലുട്ടെന്ന് പറയുന്നത് എന്താ പറയുക അതിനൊരു വേറെ തന്നെ ഒരു ഫീലുണ്ട് ഫ്ലുട്ടിന് ഫ്ലുട്ടെന്ന് പറയുന്നതൊരു വലിയൊരു സംഭവമാണ് എന്താ പറയുക ഫ്ലുട്ട് വായിച്ചു തുടങ്ങിയാൽ നമുക്ക് വേറെ ലോകത്തില് എത്തിയ പോലെയാണ് ഫ്ലുട്ട് കേട്ടാലും അതുപോലെ തന്നെയാണ് ചില ആള്ക്കാര് വായിക്കുന്നത് ഇപ്പോൾ നമ്മുടെ ഹിന്ദുസ്ഥാനി ഫ്ലുട്ടായാലും കര്ണാട്ടിക് ഫ്ലുട്ടായാലും ഹിന്ദുസ്ഥാനി ഫ്ലുട്ട് ആണെങ്കില് ചവറാസിയ ഫാമിലി അവര് വളരെ ടാലെന്റ്ഡ് ആൾക്കാരാണ് ഫ്ലൂട്ടില് അദ്ദേഹത്തിന്റെ കുറെ കച്ചേരിയൊക്കെ ഞാന് യൂട്യൂബില് കണ്ടിട്ടുണ്ട് വളരെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാന് ചെവറാസിയ രാകേഷ് ചെവറാസിയ അരുണ് അദ്ദേഹത്തിന്റെ മകനായാലും അപ്പോൾ ഞാന് ഫ്ലൂട്ടെടുത്ത് ഹിന്ദുസ്ഥാനി ഫ്ലൂട്ടാണ് ഞാനെടുത്തത് അത് കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് പഠിച്ചെന്ന് വെച്ചാല് യൂട്യൂബ് നോക്കിയിട്ടാണ് പഠിച്ച് ചിന്മയ് ഗോര് എന്ന് പറയുന്ന ഒരാളുണ്ടാരുന്നു യൂട്യൂബില് അദ്ദേഹത്തിന്റെ വീഡിയോ ഒക്കെ നോക്കിയിട്ടാണ് കുറച്ച് കുറച്ച് പഠിച്ചത് ഇപ്പോൾ പിന്നെ അതിന് അതിന്റെ ഭാഗത്ത് നോക്കാറും ഇല്ല കാണാറുവില്ല രണ്ടുമൂന്ന് മാസമൊക്കെ നോക്കി ഞാന് പഠിച്ചായിരുന്നു കാരണം നമ്മള് സ്വന്തമായി പഠിക്കുമ്പോൾ കുറെ അതുനോക്കി പഠിക്കുമ്പോൾ ഉണ്ടായ തെറ്റുകളും നമുക്ക് തിരുത്താന് പറ്റില്ലായിരിക്കും ചിലപ്പം പക്ഷെ നമ്മള് നമ്മള് ചിലപ്പോൾ നോട്ടീസ് പോലും ചെയ്യില്ലായിരിക്കും അതുകൊണ്ടുപിന്നെ തെറ്റ് പഠിക്കണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഞാന് ഫ്ലൂട്ട് ഒന്ന് സ്വന്തമായി പഠിക്കാന് പോവുന്നത് നിര്ത്തിയത് സ്വന്തമായി യൂട്യൂബ് നോക്കി പഠിക്കുന്നത് നിര്ത്തിയത് ഗുരുവിന്റെ ഇതില്ലാതെ ഫ്ലുട്ട് പഠിക്കുന്നത് അത്ര ശരിയല്ല കാരണം തെറ്റു പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ശെരിയാക്കാന് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും അതുപോലെതന്നെ ഞാന് ഉക്കുലേലെന്നു പറഞ്ഞ ഒരു ഇന്സ്ട്രമെന്റ്റും യൂട്യൂബ് നോക്കി കുറെ പഠിച്ചിട്ടുണ്ട് അത്യാവശ്യം പാട്ടിനൊക്കെ ഉക്കുലേലു ഇന്സ്ട്രമെന്റ് പ്ലേ ചെയ്തുകൊണ്ട് അതായത് അതില് കോഡ്സ് എന്ന് പറയുന്നത് സീക്കോഡായാലും ഈമേജറായാലും ഡിമേജറായാലും ഡിമൈനറായാലും അങ്ങനത്തെയൊക്കെ ഒരുപാട് കോഡ്സ് എന്നൊക്കെ ഈമേജറല്ല ഒര് അങ്ങത്തെ കുറെ കോഡ്സ് എന്നൊക്കെ പ്ലേ ചെയ്ത് പഠിച്ചിട്ടുണ്ട് ഹിന്ദി പാട്ടുകള്ക്കൊക്കെ റെക്കോര്ഡ് ചെയ്ത് ഞാന് ഇന്സ്റ്റാഗ്രാമില് പോസ്റ്റ് ചെയ്തിട്ടുമുണ്ട് കുറച്ചൊക്കെ അങ്ങനെ കുറെ കുറെ വീഡിയോ ഞാന് എന്റെ ഫോണില് റെക്കോര്ഡ് ചെയ്തിട്ടും ഒരുപാട് ഒരുപാടെന്ന് പറഞ്ഞാൽ എനിക്കൊരുപാട് ഇന്ട്രസ്റ്റോടെ മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സില് അങ്ങനെ ഞാന് കുറെ റെക്കോര്ഡ് ചെയ്ത് ഇങ്ങനെ പ്ലേ ചെയ്തിട്ടൊക്കെ നോക്കിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഞാന് ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സ് എന്ന് പറയുന്നത് എനിക്കെന്തോ മ്യൂസിക്കില്ലാതെ മനുഷ്യര്ക്ക് ജീവിക്കാന് വളരെ കഷ്ടമാണ് ഇന് ഏതൊരു കാലഘട്ടമായാലും പണ്ടു തൊട്ട് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോര്ട്ടന്സാണ് മനുഷ്യരുടെ ജീവിതത്തിലായാലും മനുഷ്യരുടെ മാനസിക സന്ധുലനയിൽ ആയാലും എല്ലാത്തിലും എന്ത് പറയുക എഫ്ഫക്റ്റ് ചെയ്യുന്നൊരു സംഭവമാണ് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് അതുകൊണ്ട് അതൊരു എന്താ പറയുക നമുക്ക് അതിനെ വേണേൽ ദൈവികമായി കാണാനും പറ്റും കാരണം അത്രയും കൂടുതല് ഇന്ഫ്ലുവെന്സ് ചെയ്യും നമ്മളെ മ്യൂസിക് ഇന്ന് നമുക്ക് ഇപ്പോൾ സങ്കടമാകുമ്പോൾ അവരെ കരയിപ്പിക്കാന് ഇല്ല ശേഷിയുള്ള മ്യൂസിക്കും നമ്മളെ സന്തോഷിപ്പിക്കാനുള്ള മ്യൂസിക്കും പലതര മ്യൂസിക്കാണുള്ളത് ഇന്സ്ട്രമെന്റ്റ്റില് പ്ലേ ചെയ്യാന് പറ്റുക ഇപ്പോൾ വയലിന് നോക്കികഴിഞ്ഞാല് നമുക്ക് പലതരം വയലിനായാലും ഫ്ലൂട്ടായാലും പലതരം രാഗങ്ങളൊക്കെയുണ്ട് നമ്മളെ പെട്ടന്ന് കരയിപ്പിക്കാന് പറ്റുക പെട്ടന്ന് ചിരിപ്പിക്കാന് പറ്റുക ഫോര് എക്സാംമ്പിള് നോക്കിയാല് നമ്മളിപ്പോൾ ചാരുകേശി രാഗം ഫ്ലൂട്ടില് വായിച്ചാല് നമുക്ക് പെട്ടന്ന് കരച്ചില് വരും അങ്ങനത്തെ ഒരു രാഗമാണ് ചാരുകേശി എന്ന് പറയുന്നത് അതേപോലെതന്നെ നമ്മളിപ്പോൾ മോഹനരാഗവോ അല്ല ഹംസധ്വനി രാഗവോ ഫ്ലൂട്ടില് പ്ലേ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടന്ന് സന്തോഷമാകും അതിന് മോർണിങ് ട്യൂൺസ് എന്ന് കൂടി പറയും ഈ മോഹനരാഗം ആയാലും ഹംസധ്വനി ആയാലും അതിനെ ഫ്ലൂട്ടിലൊക്കെ പ്ലേ ചെയ്താൽ വളരെ മനോഹരമായതാണ് നമ്മുടെ കൃഷ് ഫിലിമില് ഒരു പാട്ടുണ്ട് അത് ഫ്ലൂട്ടില് പ്ലേ ചെയ്തതാണ് അത് നമ്മുടെ ഹംസധ്വനി രാഗത്തിലാണുള്ളത് ഒരുപാട് ഫേ ഭയങ്കര ഫേമസായ പാട്ടാണത് ഫ്ലൂട്ടിന്റെ മ്യൂസിക്കെന്ന് പറയുന്നത് പ്രത്യേകിച്ച് നയൻറ്റി പേഴ്സ്ൻറ് ഓഫ് ആള്ക്കാര്ക്ക് അത് ആ ഒരു തൊണ്ണൂറു ശതമാനം ആള്ക്കാര്ക്കും ആ ഒരു മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എല്ലാവരേയും മനസ്സ് സന്തോഷിപ്പിക്കുന്ന ഒരു ടൈപ്പ് മ്യൂസിക്കാണ് അതും ഫ്ലൂട്ടില് പ്ലേ ചെയ്താൽ പിന്നെ അതിനെക്കുറിച്ച് പറയണോ അങ്ങനെ ഇന്സ്ട്രമെന്റ്റ്റ് എന്താ പറയുക വളരെ ഇമ്പോര്ട്ടന്സ് ഉള്ള ഒരു കാര്യമാണ് ഇന്സ്ട്രമെന്റ് എന്ന് പറയുന്നത് ഇന്സ്ട്രമെന്റ്റ്റ് നമ്മളെ മാനസീകമായി വളരെ ഊർജ്ജ ഊര്ജ്ജകരമാക്കുക ആക്കുകയോ അല്ലെങ്കിൽ നമ്മളെ ഡിപ്പ്രഷനില് നിന്ന് മാറ്റുകയോ അങ്ങനത്തെ ഒക്കെ കഴിവുള്ളൊരു സംഭവമാണ് ഈ മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് എന്ന് പറയുന്നത് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് പഠിക്കുക എന്ന് പറഞ്ഞാല് അത് എന്താ ഒരു എളുപ്പം കാര്യമല്ല അതിന് നമ്മളൊരുപാട് സമയം കൊടുക്കണം നമ്മള് നമ്മൾ ഈ ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെടണം കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടാന് പറ്റില്ല അതും ഇച്ചിരി കഷ്ടപ്പെട്ടൊരു കാര്യവാണ് ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെടുന്നതില് നമ്മള്ക്ക് സന്തോഷമേയുള്ളു കാരണം അതിന്റെ അതിന്റെ അനുഭവം വേറെ തന്നെയാണ് ഇഷ്ടപ്പെട്ട് കഷ്ടപ്പെടുന്നതിലും കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനും വളരെ വ്യത്യാസമുണ്ട് അങ്ങനെ ഒക്കെയാണ് നമ്മുടെ മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് അതു പ്ലേ ചെയ്യുന്ന കുറെ ആള്ക്കാരും അങ്ങനെ തന്നെയാണ് പറയാറ് പറഞ്ഞിട്ടൊണ്ട് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ് പ്ലേ ചെയ്യണമെങ്കില് ഒരുപാട് കഷ്ടപ്പെടണം ഒരുപാട് സാധകം ചെയ്യണം ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം മൂന്നോ നാലോ മണിക്കൂറ് ആ ദിവസത്തിൻ്റെ നമ്മള് എന്തായാലും അതിന് വേണ്ടി മാറ്റിവെക്കണം കാരണം അത്രയും മാറ്റിവെച്ചാലേ നമുക്ക് അതില് മുന്നേറാന് പറ്റൂ അതില് നമുക്ക് നല്ലൊരു അതിനെക്കുറിച്ച് നല്ലോരറിവും നല്ലൊരു നല്ലൊരു പാട്ടോ അല്ലെങ്കില് മ്യൂസിക്കോ അതില് പ്ലേ ചെയ്യണമെങ്കില് നമ്മളത്രയും കഷ്ടപ്പെട്ട് അതിനെ നമ്മള് ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെട്ടു കഷ്ടപ്പെടണം അതാണ് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സ് എന്ന് പറയുന്നത് കാരണം നമ്മളതിനെ എത്ര ഇഷ്ടപ്പെടുന്നോ അത്രയും നമ്മളെ അതിഷ്ടപ്പെടും അതാണ് മ്യൂസിക്കല് ഇന്സ്ട്രമെന്റ്സ്